ഹൈക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭൂപ്രദേശം എന്ന് പറഞ്ഞാൽ ഈ മലകൾ വനങ്ങൾ ബീച്ചുകൾ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ ഇടതൂർന്ന വനങ്ങൾ പർവ്വതങ്ങളിലെ സൂര്യാസ്തമയങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളയിടത്തൊക്കെ ഹൈക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടാണ് ഓരോരുത്തരും നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുന്നത് തന്നെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടാണ് ഇല്ലാതെ ആരും വീട്ടിലിപ്പോൾ വീട്ടിലിരുന്നിട്ട് അങ്ങനെയൊന്നും വീഡിയോസാണെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും ഇപ്പോൾ പുറത്തേക്കിറങ്ങി ഈ പ്രകാശ പുറത്തുള്ള പ്രകൃതി ഭംഗി ഒക്കെ ആസ്വദിച്ച് പുഴയാണെങ്കിൽ തന്നെ പുഴയിലേക്ക് ഒന്ന് ഇറങ്ങി വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഈ പാടത്തൊക്കെ വയലിൽ ഒക്കെ ഇറങ്ങി അങ്ങനെയുള്ള ആ വയലിൽ ഒക്കെ ഇറങ്ങി പാട്ടു പാടുക ഡാൻസ് കളിക്കുക അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ ഈ മഞ്ഞ് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും നല്ല രസമായിരിക്കും ഒരു അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ട് ഇതാക്കുകയാണെങ്കിൽ പിന്നെ മലകളാണേ തന്നെ മലകളെ മലകളുടെ കുറച്ച് ദൂരെ നിന്നിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മര ആ മല നമ്മളെ കവർ ചെയ്യും നമ്മുടെ മേലെയായിരിക്കും അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്താൽ തന്നെ നല്ല രസങ്ങളായിരിക്കാമല്ലോ വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ള് കാടുകൾ ചുറ്റും കാടുകളായിരിക്കും ആ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ മാത്രം നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ നല്ല രസമായിരിക്കും ആ ഒരു ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഇപ്പോൾ ബീച്ചിൽ തന്നെയാണ് എല്ലാവരും ബീച്ചിൽ നിന്നിട്ടും ചോക്ലേറ്റ് ആണെങ്കിലും മിഠായി ആണെങ്കിൽ ചൊരണ്ടീസൊക്കെ തിന്നുന്ന ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വീഡിയോസൊക്കെ എടുത്ത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതു കണ്ട് അതൊക്കെ നല്ല രസം തന്നെയാണ്